ഇപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പൂന്തോട്ടത്തിൽ എന്തെങ്കിലും പക്ഷികൾക്ക് കഴിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽത്തന്നെ നോർമലി എല്ലായിടത്തും പക്ഷികൾ വരാറുണ്ട് പൂന്തോട്ടത്തിനടുത്ത് അപ്പോൾ അതിൻ്റെ ഭംഗിയും കാര്യങ്ങളും അവർക്കുള്ള ഒരു ഇതൊക്കെ കിട്ടുമ്പോൾ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ പക്ഷികൾ കാര്യങ്ങൾ വരാറുണ്ട് പിന്നെ പക്ഷികൾക്ക് കഴിക്കാൻ പറ്റിയ ചെറിയ എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കാനായിട്ടും ഒക്കെയായിട്ട് എല്ലായിടത്തും തന്നെ വീട്ടുമുറ്റത്ത് പക്ഷികൾ വരാറുണ്ട് പിന്നെ എല്ലായിടത്തും തന്നെ പക്ഷികൾ വരുന്നിടത്ത് അവർക്ക് കഴിക്കാനായിട്ടുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ നെല്ലോ കാര്യങ്ങളോ ഫുഡ്ഡോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽത്തന്നെ എടുത്തു വയ്ക്കാറുണ്ട് അതായത് വീടിൻ്റെ മുറ്റത്ത് എടുത്തു വച്ച് എന്തെങ്കിലും പാത്രത്തിലോ കാര്യത്തിലോ വച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ പിന്നെയിങ്ങനെ അതിൻ്റെ എണ്ണസംഖ്യ കാര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കാറുണ്ട് അവർ വന്ന് കുറേനേരം അതൊക്കെ കഴിച്ച് വീടിൻ്റെ മുമ്പിൽക്കൂടി ഇങ്ങനെ പറന്ന് നടക്കുന്നത് കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പം പ്രേത്യേകിച്ച് നമ്മുടെ പൂന്തോട്ടത്തിലും കൂടി ആകുമ്പോൾ അതിൻ്റേതായൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ ലഭിക്കും